മറ്റ് പട്ടണങ്ങളിൽ ഒക്കെ സ്കുളിൽ കുട്ടികൾ പോണത് ബസ്സിലും അതായത് അവർക്ക് എല്ലാം സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ അവിടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടേൽ ബസ്സുണ്ട് ബസ്സ് ഉണ്ടെങ്കിലും ഓവർ ഫീസൊക്കെ ആയിരിക്കും കൂടുതലും പാവപ്പെട്ട കുട്ടികൾ ഒക്കെ ആയിരിക്കും പഠിക്കുന്നതും ഇത്താക്കണതും ഒക്കെ അപ്പം അവർക്ക് ഒന്ന് നമ്മൾ എന്താ പറയുക അവർ ഉദ്ദേശിച്ചപോലെ വിദ്യഭ്യാസം കൊടുക്കാനും അങ്ങനെ ഉള്ള കാര്യത്തിനൊന്നും ഇതാക്കാൻ പറ്റുന്നില്ല ബസ്സുകൾ ഒക്കെ ഉണ്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട് അങ്ങനെത്തേലൊക്കെയാണ് കൂടുതലും കുട്ടികൾ പോണത് കുട്ടികൾ തിക്കിത്തിരക്കിയാണ് അങ്ങനെയൊക്കെ പ്രൈവറ്റ് ബസ്സുകളിൽ ഒക്കെ ഇങ്ങനെ പോകുന്നത് മികച്ച നിലവാരമുള്ള പ്രാതക്യ പാതൃ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നൽകുന്നെങ്കിൽ അതായത് ഇംഗ്ലീഷ് മീഡിയം അതായത് ഒരുപാട് ഡോനേഷനും അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അടച്ചിട്ടാണ് കുറേപേർ കുട്ടികളൊക്കെ പഠിക്കുന്നത് അതൊക്കെ പൈസക്കാരുടെ കുട്ടികൾക്കെ പിന്നെ ഇതാവുള്ളൂ പാവപ്പെട്ട കുട്ടികൾ അപ്പം പാവപ്പെട്ട കുട്ടികൾ തന്നെ ആയിരിക്കും അപ്പം അതൊക്കെയാണ് മെയിൻ വെല്ലിവിളിയെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ അതായത് ബസ്സ് ബസ്സിന് കൊടുക്കാനുള്ള പൈസയുണ്ടാകില്ല പിന്നെ ഇപ്പോൾ ഡൊനേഷനൊക്കെ ഇംഗ്ലീഷ് മീഡിയം അങ്ങനത്തെ ക്ലാസ്സുകളിലൊന്നും വിടാൻ പറ്റില്ല ആ അതൊക്കെ തന്നെയാണ് മെയിൻ പ്രശ്നങ്ങൾ കുട്ടികളുടെ കാര്യം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വിദ്യാഭ്യാസ കാര്യങ്ങൾ